മൃഗ വളർത്തലില് കര്ഷക കർഷകർ അഭിമുഖികരിക്കുന്ന പ്രശ്നങ്ങള് വെല്ലുവിളികള് ഒക്കെ ഒന്ന് സ്ഥലമില്ലല്ലോ സ്ഥലം കൂടുതലും ഇങ്ങനെ സ്ഥലമില്ലാത്തതൊരു വെല്ലുവിളിയാണ് പിന്നെ അതുങ്ങൾക്കുള്ള തീറ്റി അതുപോലെതന്നെ അത് അതുങ്ങൾക്കിടയ്ക്കിടയ്ക്കിടയ്ക്കുണ്ടാകുന്ന അസുഖങ്ങള് അതൊക്കെ ഒരു പ്രധാന വെല്ലുവിളികള് അതൊക്കെ ഒക്കെ പ്രധാന വെല്ലുവിളികളാണ് താങ്ക്യൂ പ്രധാന വെല്ലുവിളികള് തന്നെയാണ് അത് നമുക്ക് എന്താണ് അതുപോലെ തന്നെ ഇപ്പോള് വളർത്ത് വളർത്തലിലിപ്പോള് ഒരുപാട് ശല്യങ്ങളുണ്ട് കാരണം നമുക്ക് ഇപ്പോള് വന്യ മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് ഇപ്പോള് പൊതുവെ കേരളത്തിലാണെന്നു പറഞ്ഞാലും ഒത്തിരി ശല്യങ്ങളുണ്ട് അപ്പോള് അത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അത് കാരണം അതൊക്കെ കർഷകരെ ഒരുപാട് ഒരുപാടവരെ വേദനിപ്പിക്കുന്നു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുന്നു ഉണ്ട് കാരണമവർ എല്ലാവർക്കും ഒരു ഇതുണ്ട് അവരുടെ ആ വളർത്തു മൃഗങ്ങളെ കൊണ്ട് അവർക്കു മുമ്പോട്ട് പറ്റും ഇപ്പോള് കൂടുതലും പശുവിനെ വളർത്തി ആണെന്ന് പറഞ്ഞാലും ആടിനെ വളർത്തി ഒക്കെ ജീവിക്കുന്നവരാണ് കൂടുതല് ആൾക്കാരും അവര് മുമ്പോട്ടവരുടെ കാര്യങ്ങൾ അതിൽ നിന്നുള്ള കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഓരോ വീടുകള് കഴിഞ്ഞുപോകുന്നത് അപ്പോള് അത് അവർക്ക് അതിനിടയ്ക്കുണ്ടാകുന്ന അസുഖങ്ങളും അതിൻ്റെ സ്ഥലം സ്ഥല പരിമിതിയും അതുപോലെ തന്നെ തീറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോള് പൊതുവെ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണിപ്പോള് കാരണം ഒരു പശുവിനെ വളർത്തിയാൽ തന്നെ അതിന് പിന്നെ തീറ്റി മേടിക്കണം അതിന് ഇത് പെല്ലെറ്റ് അങ്ങനെയുള്ള കാലിത്തീറ്റകളൊക്കെ മേടിക്കണമെങ്കില് ഭയങ്കര വിലയാണ് കാരണം അതുപോലെ തന്നെ പാലിന് നമ്മള് നമ്മള് സാധനം മേടിക്കുമ്പോള് നമുക്കത് വിലയുണ്ട് പക്ഷെ അത് നമ്മള് മിൽമയിലാണ് നമ്മള് പാല് കൊടുക്കുമ്പോള് തന്നെ ആണെന്ന് പറഞ്ഞാലും അത് മിൽമായിൽ നമ്മുടെ ആ പശുവിന് ആ പാലിന് കൊഴുപ്പില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നമ്മളുദ്ദേശിക്കുന്ന പൈസയൊന്നും അവിടെനിന്നു കിട്ടണമെന്നില്ല ഇപ്പോള് സാധനങ്ങളുടെ വില ഒരു ഒരു പരിധിവരെ ശരിക്കും ഒരു വെല്ലുവിളികളാണ് പിന്നെ സ്ഥല പരിമിതി അതുപോലെ തന്നെ വന്യ മൃഗങ്ങളുടെ കാരണം നമുക്കെവിടേലും കൊണ്ടുചെന്നു കെട്ടാമെന്നുവച്ചുകഴിഞ്ഞാല് തന്നെ കാരണം തെരുവുനായ്ക്കളുണ്ട് അങ്ങനെ പല പല ശല്യങ്ങളുണ്ട് അതൊക്കെ ഭയങ്കര ഒരു വെല്ലുവിളികള് തന്നെയാണ് പിന്നെ അതെല്ലാംകൊണ്ട് ഞങ്ങള്ക്ക് ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്തായിരുന്നു ഞങ്ങള്ക്ക് സ്ഥല പരിമിതിയായിരുന്നു മെയിനായിട്ടുള്ള വിഷയം കാരണം നമുക്ക് തീറ്റപ്പുല്ല് അതൊന്നും വച്ച് കൊടുക്കാനുള്ള ഒരു സ്ഥലം ഒന്നും നമുക്കില്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകള് നമുക്കൊണ്ടാവ ഉണ്ടായിരുന്നു കാരണം അതുകൊണ്ട് നമുക്ക് അതിന് കാരണം അതുങ്ങളെയുംകൊണ്ട് നമുക്കാ ഒരു ഇത് കിട്ടാവുന്നുള്ളത് നമുക്കില്ല കാരണം എന്ന് വച്ചുകഴിഞ്ഞാല് കാരണം എന്താ പറയുക അതിനെ നമുക്ക് നമുക്കതുകൊണ്ട് മുമ്പോട്ടുപോകാൻ പറ്റുകേലാന്നുള്ളൊരു ഇത് വരുവാണ് അപ്പോള് ഞങ്ങള് അപ്പോള് വീട്ടില് നമുക്ക് അതുപോലെ തന്നെ ഇതുങ്ങളെയും വളര്ത്തുമ്പോള് നമ്മള് നമുക്ക് അർജെൻറ്റായിട്ട് ഒരിടത്തോട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മള് ആരെ ഏപ്പിച്ചിട്ടുപോകും കാരണം നമ്മള് നോക്കുന്നതുപോലെ മറ്റൊരാളും നോക്കുകയില്ലാന്നൊള്ളൊരു അതവർക്കു പറ്റത്തില്ല കാരണം നമ്മളായിരിക്കും നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മള് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നൊരു പശു ആണെന്ന് പറഞ്ഞാലും ആടാണേലും അതുങ്ങളാണെന്നും പറഞ്ഞാലും മറ്റൊരാളുമായിട്ട് പെട്ടെന്ന് ഇതാവുമ്പോള് അതുങ്ങൾക്കും അവരുടേതായിട്ടൊള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കുമുണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് കാരണം മറ്റുള്ളവരെ ഏപ്പിച്ചിട്ട് പോകുമ്പോള് അവർക്ക് അതിൻ്റേതായിട്ടുള്ള എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് ഇതുങ്ങളെക്കൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുകളുണ്ടാവോ കാരണം നമ്മള് പെട്ടെന്നൊന്ന് മാറണം നമുക്കൊരു എന്തേലും ഒരു അത്യാവശ്യ കാര്യം വരുവാണെന്നുണ്ടെങ്കിലത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതല്ലേ അത്യാവശ്യമൊരു കാര്യം വന്ന് മാറി നില്ക്കുമ്പോഴത്തേനും അത് കാരണം നമ്മള് ഇപ്പോള് പശുവിന് ആണെന്നുണ്ടേലും നമ്മള് പശു പാല് നമ്മല് കറന്നോണ്ടിക്കുമ്പോഴത്തിനും നമുക്ക് ഇത്ര ലിറ്റര് പാല് കിട്ടുമായിരുക്കും പക്ഷെ വേറൊരാള് അത് പെട്ടെന്ന് മാറി ഒരു ദിവസ അതിനെ പശുവിനെ കറക്കാൻ ചെല്ലുമ്പോള് അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയില് നമുക്ക് പാല് കിട്ടണമെന്നില്ല അങ്ങനെ പല പല പല പ്രശ്നങ്ങളുണ്ടതിൻറ്റാത് കാരണം അത് പിന്നെ നമുക്ക് അത് മൃഗങ്ങൾക്കാണെന്നു പറഞ്ഞാലും നമ്മുടെ തിരിച്ചറിയാൻ പറ്റുമല്ലോ കാരണം നമ്മള് നമ്മള് സ്നേഹിച്ച് നമ്മള് ലാളിച്ചു വളർത്തുന്ന വളർത്തു മൃഗങ്ങള് നമ്മളോടൊളള ഇത് കാണത്തില്ലേ അതുപോലെ തന്നെ അങ്ങനെ ഉള്ള അനുഭവങ്ങളാണ് എനിക്കു ഉണ്ടായിട്ടുള്ളത് അതാണ് തീറ്റിക്ക് ഉള്ള ബുദ്ധിമുട്ടുകള് പിന്നെ വില വിലക്കയറ്റമാണ് ഞാന് ഞങ്ങളഭിമുഖീകരിച്ച പ്രത്യേക ഒരു പ്രശ്നം അതുപോലെ തന്നെ സ്ഥല പരിമിതിയായിരുന്നു ഞങ്ങള് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്